ഹലോ ആ ഇത് പാരഡൈസ് കോക്കനട്ട് മിൽ അല്ലേ ആ ഇത് മാനേജർ ആണോ ആ ഞാൻ ഒരു പത്ത് ലിറ്ററിൻ്റെ മറ്റേ കാനിൽ എടുക്കാൻ വേണ്ടി കോക്കനട്ട് ഓയിലിൻ്റെ കാനിൽ എടുക്കാൻ വേണ്ടിയാരുന്നു ഞാൻ കണ്ണൂരിൽ നിന്നാണേ

അല്ല ഞാൻ വന്ന് എടുക്കാൻ വേണ്ടിയായിരുന്നേ ആണോ ആ ആ ആ ആ എനിക്ക് അവിടുത്തെ മൊത്തം ഇതൊക്കെ ഒന്നു നോക്കി കാണണമായിരുന്നു പിന്നെ ഇതിനു വരുന്ന ക്വാളിറ്റീസൊക്കെ ഒന്ന് പറയാമോ ആ ആ ആ ആ ആ ആ ഇത് എങ്ങനെയാണ് നിങ്ങൾ തന്നെ കളെക്റ്റ് ചെയ്യുന്ന തേങ്ങ കൊണ്ടാണോ ഇത് ഇത് ആ ഓയിൽ ഉണ്ടാക്കുന്നത് ആണല്ലേ ഹോം മേഡ് ആണ് തലയിൽ യൂസ് ചെയ്യുന്നത് മുടി കൊഴിച്ചിൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ലല്ലോ ആ ആണല്ലേ ആ ഫുഡിലൊക്കെ യൂസ് ചെയ്യുന്നതിന് അതിനായിട്ട് എന്തെങ്കിലും ഉണ്ടോ പിള്ളേരൊക്കെ കഴിക്കുന്ന ഫുഡാണേ ആ നിങ്ങളുടെ ചാർജ്ജ് എത്രയാ വരുന്നേ ആണല്ലേ ഇവിടെ വച്ചാൽ ഇവിടെ ഒരു ആ ഇവിടെ തൊണ്ണൂറ് ആ അതിൻ്റെ മേലേക്കുതന്നെ ആണല്ലേ ഇപ്പോൾ ഈ വെളിച്ചെണ്ണയിലൊക്കെ മറ്റേ മെഴുകൊക്കെ യൂസ് ചെയുന്നുണ്ടല്ലോ അപ്പോൾ അതും കൂടി ഒന്നു നമ്മൾ ചെക്ക് ചെയ്യണമല്ലോ അതാ ഞാൻ ചോദിച്ചത് ക്വാളിറ്റീൻ്റെ ആണല്ലേ ആ ഞങ്ങൾക്ക് ചെക്ക് ചെയ്യാമല്ലേ ആ ഈ മിൽ എവിടെയായിട്ടാണ് വയനാട്ടിൽ എവിടെയായിട്ടാണ്

ആണല്ലേ ആ ഓക്കേ ഇപ്പോൾ നമ്മൾക്കിത് ഡെലിവറി ചെയ്യുന്നതിന് എത്രയാവും വീട്ടിൽ കൊണ്ട് തരികയാണെങ്കിൽ ആ ആ ഈ നിങ്ങളുടെ ഷോ റൂം കണ്ണൂരിൻ്റെ അവിടെയായിട്ട് ഇല്ലാല്ലേ ആ ആണല്ലേ ആ ആ ആ ഈ കറെക്റ്റ് ഈ മിൽ എവിടെയായിട്ടാണ് ആ ആണല്ലേ ആ ആ ആ ഓക്കേ ആ ഞാൻ എന്നാൽ എനിക്ക് വേണ്ട ഒരു ദിവസത്തേക്ക് വേണ്ടി ഞാൻ പറയാം നിങ്ങളുടെ നമ്പർ ഇതു തന്നെ അല്ലേ ഇതിലേക്ക് മെസേജ് അയച്ചാലും പോരേ ആ ആ ഓക്കേ ഇത് കമ്പനി നമ്പർ ആണോ

ഈ കമ്പനിയിലേക്ക് അയച്ചാലും ഡീറ്റൈൽസ് എല്ലാം അറിയാൻ പറ്റുമല്ലോ ആ ആ ഓക്കേ ഓക്കേ ആ ശരി എന്നാൽ